ആ ഞാൻ വയനാട്ടിലെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നതായിരുന്നേ പാക്കേജ് എടുത്തിട്ട് വരാനാണ്

ആ ആ ആ ഒരു പത്ത് പേർ ഉണ്ടാവും

ആ ആ ആ എങ്ങനെ ആയിരുന്നു ചാർജ് പറഞ്ഞത് എങ്ങനെ ആയിരുന്നു രണ്ട് പാക്കേജ് ആണെങ്കിലും അങ്ങനെ തന്നെയാണോ ആണ് അല്ലേ ആ ആ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെത്തന്നെ

ആണല്ലേ അപ്പം നമ്മൾ പിന്നീട് ബുക്ക് ചെയ്താൽ മതിയോ വിളിച്ചിട്ട് ഒന്ന് എല്ലാവരോടും ഒന്ന് ചോദിച്ചിട്ട് പിന്നെ ബുക്ക് ചെയ്താൽ മതിയോ ആ ആ ആ എന്നാൽ ആ ആ ആ ആയിക്കോട്ടെ എന്നാൽ ഞാൻ ഇവിടെ ചോദിച്ചിട്ട് ഞാൻ വിളിക്കാം